മഴയെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങളുണ്ടായിരിക്കും നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും മഴയില്ലെങ്കിൽ നമുക്ക് വെള്ളമില്ലല്ലോ അത് കൊണ്ട്

എപ്പോഴും മഴയെ ഇഷ്ടപെടുന്നവരായിരിക്കും എല്ലാവരും മഴയില്ലെങ്കിൽ നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളമില്ലെങ്കിൽ ഭയങ്കര ദുരിതത്തിലായി മാറും ഈ കൊടുംചൂടിൽ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് മഴ ലഭിക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് മഴയും ഇല്ല ഒന്നും ഇല്ല ഭയങ്കര ബുദ്ധിമുട്ട് ആണ് മഴയില്ലാത്തത് കൊണ്ട് ഒത്തിരി കർഷകർക്ക് മഴ വേണ്ട സമയത്ത് മഴ കിട്ടാതെയും പോകുന്നുണ്ട് വേണ്ടാത്ത സമയത്ത് മഴ പെയ്ത് അവരുടെ കൃഷിയും ഒരുപാട് നശിക്കുന്ന അനുഭവങ്ങളും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ വേണ്ട സമയത്ത് നമുക്ക് മഴ ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളമില്ലാതെ നമ്മൾ ഭയങ്കര ആയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് കരണ്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം വേണം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഴ വേണം മഴ പെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇരുട്ടിലായി പോകുന്ന അവസ്ഥയുണ്ടാവും പിന്നെ മഴ പെയ്യുന്ന സമയത്ത് മഴക്കാലത്താണ് നമുക്ക് പല ദുരന്തങ്ങൾ ഉണ്ടാവുന്നുണ്ട് മഴക്കെടുതികളും അങ്ങനെ നമുക്ക കുറേ ദുരന്തവാർത്തകൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടതും അങ്ങനെയൊക്കെ ഉണ്ട് അതും നമുക്ക് സങ്കടകരമായതാണെങ്കിൽ പോലും നമുക്ക് മഴയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല നമുക്ക് വെള്ളം വേണം മഴ പെയ്യാതെ ഇരുന്നാൽ നമ്മൾ കെ കിണറുകളും പുഴകളും കുളങ്ങളുമൊ ക്കെ വറ്റി പോകുന്ന ഒരു അവസ്ഥയാണ് പിന്നെ മഴ പെയ്യേണ്ട സമയത്ത് മഴ ലഭിക്കണം അത് ഇല്ലായിട്ടിൽ ഇല്ലാതെ വന്നാൽ നമ്മൾ ആകെ വെള്ളമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് മഴയത്ത് കളിച്ചും മഴ കൊണ്ട് നടന്നിട്ടും അങ്ങനെ കുറെ അനുഭവങ്ങളും കുട്ടിക്കാല ഓർമ്മകളും ഒക്കെ ഉണ്ട് മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് അത് ചില സമയങ്ങളിലൊക്കെ ശല്യമായി പറയും നമ്മൾ എങ്കിലും നമുക്ക് അത് ഇല്ലാതെ വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാകുന്നത് ഈ കൊടും ചൂടിൽ നമ്മൾ പ്രതിഷിക്കാതെ ചില സമയത്ത് പെയ്യുന്ന മഴ ഉണ്ട് ആ മഴയെ നമ്മൾ എത്ര സന്തോഷത്തോടെയാണ് നമ്മൾ അത് സ്വീകരിക്കുന്നത് മഴ ചില മഴ വരും അപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷത്തോടെ അതിനെ കാത്തിരിക്കുന്നുണ്ടാവും അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉം